കാലാവസ്ഥക്ക് അനുസരിച്ചാണ് ഞാൻ ചെടികൾ നല്ല രീതിയിൽ സംരക്ഷിക്കാറുള്ളത് ഇപ്പം വേനൽക്കാലത്ത് ആണെങ്കിൽ ഞാൻ രണ്ട് നേരം ചെടി നനക്കും പിന്നെ വേനൽക്കാലത്ത് രണ്ട് നേരം നനച്ചാൽ തന്നെയും മണ്ണ് ഉറച്ച് നല്ല കട്ടിയാവും അപ്പം അതുകൊണ്ട് ഞാൻ കരിയില ഇടും കരിയില ഇട്ടിട്ട് ആ കരിയില നനക്കുമ്പം പിന്നെ കരിയില അത്ര വേഗം ഉണങ്ങില്ല മണ്ണ് ഉണങ്ങുന്ന മാതിരി കരിയില ഉണങ്ങില്ല പിന്നെ അപ്പം കരി ഇലയുടെ ആ വെള്ളം എപ്പോഴും ആ ചെടിക്ക് നിന്ന് കഴിഞ്ഞാൽ ആ ചെടി നല്ല രീതിയിൽ തഴച്ച് വളർന്ന് കായും പൂവും ഒക്കെ ഉണ്ടാവും പിന്നെ മഴക്കാലത്ത് മഴക്കാലത്ത് ആണെങ്കിൽ അത് ശക്തിയായ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഞാൻ പരമാവധി എൻ്റെ ചെടികൾ വെള്ളം കുത്തി വീഴുന്നിടടത്ത് നിന്ന് മാറ്റി വയ്ക്കും അതല്ല എങ്കിൽ ഈ ചെടികൾ പ്ലാസ്റ്റിക്ക് ഗ്രോ ബാഗിലൊക്കെ ആണ് നട്ടത് എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹോളുകൾ ഞാൻ ഉണ്ടാക്കും അപ്പം ആ വെള്ളം വലിച്ചു വലിച്ച് താഴത്തേക്ക് പോകും കെട്ടി നിൽക്കില്ല കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഉണങ്ങി പോവില്ല ആ പിന്നെ മഞ്ഞ് കാലം മഞ്ഞ് കാലമാണങ്കിൽ നല്ല കാലാവസ്ഥ ആയിരിക്കും എന്നാലും നമ്മൾ രണ്ട് നേരം ചെടി നനക്കണം മഞ്ഞ് കാലത്ത് എല്ലാ ഇതും തന്നെ പൂവ് ഉണ്ടാവുന്ന കാലാവസ്ഥയാണ് മഞ്ഞ് കാലം